ഞാന് ചെറുപ്പം മുതല് സൈക്കിള് ഉപയോഗിക്കുന്ന വ്യക്തിയാണ് ഇപ്പോഴും സൈക്കിള് ഉപയോഗിക്കുന്നുണ്ട് സൈക്കിള് ഉപയോഗിക്കാന് തുടങ്ങിയ സാഹചര്യത്തില് എനിക്ക് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് സൈക്കിളോട്ടാന് പഠിക്കുക എന്റെ സഹോദരന് എനിക്ക് ഇതിനൊരു ധൈര്യം തന്നു അദ്ദേഹം കുറേ ശ്രമിച്ചു അത് സാധികുന്നില്ല എന്ന് തോന്നിയതുകൊണ്ട് എന്റടുത്ത് പറഞ്ഞു തനിയെ പഠിക്കാന് പറഞ്ഞു പലപ്പോഴും അങ്ങനെയാണ് ഞാന് തനിയെ പഠിച്ചത് കുറേ സൈക്കിളില് വീണ് വീണിട്ട് വീണു വീണിട്ടൊക്കെ തന്നെയാണ് പഠിച്ചത് സൈക്കിള് ഓടിക്കാന് പഠിച്ചതുപോലെ അത് തന്നെയാണ് ഏറ്റവും വലിയ ദുര്ഘടവും അല്ലെങ്കില് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങളും സൈക്കിളുമായിട്ട് ഉള്ള ബന്ധപ്പെട്ടിട്ട് പിന്നേ ഒരുപാട് പ്രാവശ്യം പല വഴികളില് പല റോഡുകളില് ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം സൈക്കിളില് നിന്ന് വീണിട്ടുണ്ട് ഒരുപാട് പരിക്കുകള് പറ്റിയിട്ടുണ്ട് പക്ഷെ എന്നാലും പരിക്കുകള് പറ്റിയാലും നമ്മളതിനെ കാര്യമാക്കാതെ വീണ്ടും വീണ്ടും സൈക്കിള് ചവിട്ടി നടക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴും സൈക്കിളിനോട് ഒരു പ്രത്യേക സ്നേഹം തന്നെയാണ് സൈക്കിള് ഓട്ടാന് ഇപ്പോഴും ശ്രമിക്കാറുണ്ട്